ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിനില്ല പക്ഷെ എങ്കിലും മറ്റ് കുടുംബക്കാർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു തവണ ഹോസ്പിറ്റൽ ആയ സമയത്ത് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ലഭ്യത കുറവു കാരണം ഒരുപാട് പൈസച്ചിലവുണ്ടായിട്ടുണ്ട് അപ്പോൾ നേരെ മറിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു എൻ്റെ സുഹൃത്തിനൊര് ആപത്തു വന്ന സമയത്ത് അവരെ കുടുംബം മൊത്തം ഈ ഒര് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തതിനാൽ അവർക്കൊരുപാട് പൈസ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പം ഓരോരോ മരുന്ന് വാങ്ങുന്നതെല്ലാം അവര് ചെറിയ ചെറിയ പൈസ മാത്രമാണ് ഈടാക്കുന്നത് ഇപ്പോൾ ഒര് ക്യാൻസർ വന്നിട്ടൊരു രോഗീനെ ചികിത്സിക്കുകയാണെങ്കിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെയധികം ചെറിയ തുച്ഛമായ തുക മാത്രമേ വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒര് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാകുന്ന സമയത്തു തന്നെ കുടുംബത്തിന് ഒരു ആശ്വാസമാണ് എന്തൊരു രോഗം വന്നു കഴിഞ്ഞാലും ഇതുണ്ടല്ലോ അധികം പൈസ നമ്മള കൈമേന്ന് ചിലവാകില്ലല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ഇത് വലിയൊരു കൈത്താങ്ങായിട്ട് മാറുന്നുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ആണെങ്കിലും അല്ലെങ്കിലും ഏത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാറാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതൊരാൾക്കാർക്കും ഇതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാലങ്ങളായി നമ്മൾ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നു പക്ഷെ ഇന്നേവരെ കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ ഒരു കൊല്ലം അപേക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസിന് അപേക്ഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ പറ്റുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഇത് എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നില്ല ഒരു കുടുംബത്തിലെ ഒരാൾക്ക്

അതുമാത്രമല്ല അപ്പോൾ ഇത് മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അവര് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു അപ്പം എന്തെങ്കിലും ഒര് ആരോഗ്യം ആരോഗ്യമായി വൈകല്യമുള്ളവരോ അല്ലെങ്കില് ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടികൾക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാത്ത സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ത് അടുത്ത നമ്മള് ചെയ്യും അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര രൂപയാണ് മരുന്നിന് വേണ്ടിയിട്ട് അവര് ചിലവാക്കുന്നത് ആ ഒരു ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കില് ഈ ഒരു കാർഡ് കാണിക്കുമ്പോൾ വളരെയധികം തുച്ഛമായ പൈസക്ക് നമുക്ക് മരുന്നുകളും മറ്റ് കാര്യങ്ങളും അല്ലെങ്കില് മറ്റ് ഇ സി ജി സ്കാനിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് തുച്ഛമായ തുകയ്ക്ക് ചെയ്തു കിട്ടുന്നുണ്ട് അത് വളരെയധികം ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്